മതപരമായ കാര്യങ്ങൾ മതങ്ങളിൽ ആളുകളെ ഒത്തു ചേര്ന്ന് വിവിധ വിവിധ തരത്തിലുള്ള മതങ്ങളിലുള്ള ആളുകൾ പോലും ഒരുമിച്ചു ചേര്ന്നു കൊണ്ട് പല ആഘോഷങ്ങളും നടത്തുന്നുണ്ട് പ്രത്യേകിച്ച് ഇന്ത്യയിൽ മതേതര രാജ്യമാണല്ലോ ഇന്ത്യ അപ്പം ഒരു മതത്തിന് മാത്രല്ല പല മതങ്ങളിലുള്ളവർ ഒരുമിച്ചിരുന്ന് പല ആഘോഷങ്ങളും കൊണ്ടാടാറുണ്ട് ഏറ്റവും ഉദാഹരണായിട്ട് പറയുവാണെങ്കില് ഓണം ഓണം മഹാബലിയുടെ ഓര്മ്മക്കായിട്ടുള്ളൊരു ഉത്സവമാണ് ഹിന്ദു ബാക്ക് ബാക്ക്ഗ്രൌണ്ടിലുള്ള ഒരു ഉത്സവമാണെങ്കിലും എല്ലാ കേരളീയരും മലയാളികളെല്ലാവരും ഓണം ആഘോഷിക്കാറുണ്ട് പുതിയ വസ്ത്രങ്ങൾ ഓണപ്പൂക്കളം ഭക്ഷണം ആഘോഷങ്ങൾ ഓണക്കളി വള്ളക്കളി വള്ളം കളി അങ്ങനെ പലതരത്തിൽ ആളുകളൊത്തു ചേരുകയും വിനോദകേന്ദ്രങ്ങളിലും വിവിധങ്ങളായ വിനോദങ്ങളില് ഏര്പ്പെടുകയും ചെയ്യുന്നു അവിടെയൊന്നും മതപരമായിട്ടുള്ള നിയന്ത്രണങ്ങളൊന്നുമില്ല ഇനി മതപരമായിട്ടുള്ള ആഘോഷം നടത്തുവാണെങ്കിൽ ഇപ്പം ക്രിസ്ത്യന് പള്ളികളിലൊക്കെ നടത്തുന്ന തിരുന്നാളുകൾ അവിടെ നടത്തുന്ന മതപരമായ ചടങ്ങുകളല്ലാതെ പൊതുവായിട്ടുള്ള പാട്ട് ഗാനമേളകൾ നാടകം കരിമരുന്ന് ചെണ്ടവാദ്യ മേളങ്ങൾ പ്രദക്ഷിണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാനായിട്ട് നാനാജാതിയിലുള്ള ആളുകൾ ഒത്തുചേരുകയും അപ്പോൾ ആ പള്ളിമുറ്റമാണെന്നുള്ളതിന്റെആ പരിശുദ്ധി നില നിര്ത്തിക്കൊണ്ട് തന്നെ വിവിധ തരത്തിലുള്ള ആളുകൾ വിവിധ പ്രായക്കാർ വിവിധ മതങ്ങളിൽ വിശ്വസിക്കുന്നവരെല്ലാം ഇങ്ങനെയുള്ള ആഘോഷങ്ങള്ക്ക് ഒത്തു ചേരാറുണ്ട് അതുപോലെ ഇപ്പോഴൊക്കെ ആണെങ്കിൽ സമൂഹസദ്യ ഒക്കെ കൊടുക്കാറുണ്ട് അപ്പം പൊതുസ്ഥലങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവരും പല തരത്തിലുള്ള മറ്റു സംസ്ഥാനങ്ങളില് വന്നവർ പോലും ഇങ്ങനെയുള്ള സമൂഹ ഭക്ഷണത്തിലൊക്കെ പങ്കുചേരുകയും ഇങ്ങനെയുള്ള ആരാധനാലയങ്ങളുമായിട്ടുള്ള ചടങ്ങുകളിലും അതിന്റെ ആഘോഷങ്ങളിലൊക്കെ വളരെ സന്തോഷത്തൂടെ കൂടിയിട്ടു പങ്കു ചേരുകയും ചെയ്തിട്ടുണ്ട്

ഞാന് എന്റെ വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ പള്ളിയിലുള്ള ആഘോഷങ്ങൾ കൂടാതെ മറ്റ് മതങ്ങളുടെ ആഘോഷങ്ങളുടെ പോയത് വിവരിക്കുകയാണെങ്കിൽ അമ്പലത്തിന്റെ ഒക്കെ മുറ്റത്തു ചെറുതായിരുന്നപ്പോഴൊക്കെ ഓരോ വീടുകളിലും ചെറിയ ചെറിയ അമ്പലങ്ങളുണ്ടായിരുന്നു അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ ചെറിയ ഉത്സവങ്ങൾ ഓരോ ഒരു കിലോമീറ്ററിനുള്ളില് ചിലപ്പോൾ ഒന്നും രണ്ടും ഒക്കെ അമ്പലങ്ങളുമുണ്ടായിരിക്കും അപ്പോൾ അതിന്റെ പേര് പാലാ കൊമ്പേഴുന്നള്ളിക്കൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പിന്നെ പൂരം തുള്ളൽ സ എന്നിങ്ങനെ പൂജാരിമാരുടെയൊക്കെ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാനായിട്ടൊക്കെ പോവും അപ്പോൾ അപ്പോൾ നമുക്ക് ദൂരെ നിന്നത് കാണുകയും ചെയ്യാം പിന്നെ അവിടെയുള്ള ചെറിയ ചെറിയ കച്ചവട സാധനങ്ങളൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ കുറേയാളുകളും പ്രത്യേകിച്ച് കുട്ടികളും ഒക്കെ ഇങ്ങനെയുള്ള സാനങ്ങളൊക്കെ വാങ്ങാനും കച്ചവടക്കാര്ക്കൊരു സന്തോഷം ആ ഒരു പ്രദേശത്തിന്റെ ഒരു ഉത്സമാണ് ഇങ്ങനെയുള്ള ആഘോഷങ്ങൾ നടത്തുന്നത് അതിലേക്ക് ആളുകൾ കൂടുതലായിട്ട് പങ്കെടുക്കുമ്പോഴൊരു ഐക്യത്തിന്റെ ജാതി ഇന്നത് അല്ല ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഇങ്ങനെയുള്ള ജാതി വിവേചനം ഒന്നും ഇല്ലാതെ എല്ലാവരും കേരളീയരാണ് എല്ലാവരും മലയാളികളാണ് അല്ലെങ്കിൽ എല്ലാവരും സഹോദരങ്ങള് എല്ലാവരും ഇന്ത്യക്കാരാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ ഇങ്ങനെയുള്ള ആഘോഷങ്ങൾ നടത്തുന്നുണ്ട് അതുപോലെ മറ്റു സംസ്ഥാനങ്ങളിലൊക്കെയാണേലും അതെ പല വിവിധ സ്ഥലം സ്ഥലങ്ങളില് നിന്നൊക്കെ വന്നു താമസിക്കുന്നവർ പൊതുവായിട്ടുള്ള ഇങ്ങനെ കാര്ണിവല്സിനൊക്കെ ഒരുമിച്ചു കൂടിക്കൊണ്ട് അവരുടേതായ രീതിയിലുള്ള സാധനങ്ങളൊക്കെ വാങ്ങാനും സന്തോഷങ്ങൾ പങ്കിടാനും കൂട്ടുകാരെ കണ്ട് എത്താനും ഇങ്ങനെയുള്ള ചില ഉത്സവങ്ങള്ക്കൊക്കെയാണ് ദൂരങ്ങളിലൊക്കെയുള്ള കൂട്ടുകാരൊക്കെ വന്ന് കയറി അവരുടെ പഴയ കാര്യങ്ങളൊക്കെ ഓര്മയും സൗഹൃദം പുതുക്കാനൊക്കെയായിട്ടുള്ള ഇങ്ങനെ ആഘോഷങ്ങൾ സഹായിക്കുന്നുണ്ട് അപ്പം മതപരമായ ആഘോഷം എന്നു പറയുന്നത് ഒരിക്കലും മതത്തിന്റെ കെട്ടുറപ്പില് നിന്നു കൊണ്ടു ഉള്ളതല്ല സമൂഹത്തെ കൂടെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ടു മുന്നോട്ട് പോകാനും ഒരു സാമൂഹിക സൗഹൃദം കെട്ടിപ്പൊക്കുവാനും മത സഹിഷ്ണുതയിലൊക്കെ വളര്ന്നു വരാനായിട്ടു സമൂഹത്തെ സഹായിക്കുന്നതാണ് അപ്പോൾ നമ്മൾ വേണ്ടത് എല്ലാ മതക്കാരും ഒരേ ദൈവത്തിന്റെ സൃഷ്ടികളാണന്നും അതിലൊന്നും പിന്നെ ചെറുതോ വലുതോ എന്നുള്ള ജാതി വ്യവസ്ഥയും വ്യത്യാസങ്ങളൊന്നും ഇല്ലാതെ സ്നേഹ സൗഹാര്ദ്ദത്തിലൂടെ ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾ ഉത്സവങ്ങളൊക്കെ പങ്കു ചേര്ന്നുകൊണ്ട് അത് വിജയിപ്പിക്കുവാനും സ്നേഹത്തോടെ സന്തോഷത്തോടെ ആളുകൾ ഒത്തുചേര്ന്നു പോകാനും വേണ്ട കാര്യങ്ങളാണ് ഇങ്ങനെയുള്ള അവസരങ്ങൾ ആളുകള്ക്ക് കൊടുക്കുന്നത് അപ്പോൾ ഒരിക്കലും ഇങ്ങനെയുള്ള ഉത്സവങ്ങൾ നിന്നു പോവാതെയിരിക്കട്ടെ ആളുകളതിന്റെ മഹത്വവും അതിന്റെ സഹവര്ത്തിത്തവും സ്നേഹവും സന്തോഷവും ഷെയറിങ്ങും ഒക്കെ അനുഭവിക്കാനുള്ള ഇട വരുത്തുകയും ചെയ്യുന്നു അപ്പോൾ ഇങ്ങനെയുള്ള ആഘോഷങ്ങൾ നാടുകളിലെന്നും വേണമെന്നും അത് ആളുകളത് വളരെ സന്തോഷത്തോടും ഗൗരവത്തോടും കൂടിക്കൊണ്ടു നടന്ന് അതിനെ ഇങ്ങനെയുള്ള അവസരങ്ങളെ വിജയിപ്പിക്കുകയും ചെയ്യേണ്ടത് ആവിശ്യമാണ് ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് ആളുകൾ വീടിലൊതുങ്ങി കൂടാനാണ് ടിവിയും മൊബൈലും ഒക്കെയായിട്ടു ഒതുങ്ങി കൂടാനാണിഷ്ടപ്പെടുന്നത് പഴയ കാലത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അപ്പോൾ ഇങ്ങനെ ഈ പൊതുവായിട്ടുള്ള ചടങ്ങുകളിൽ ആളുകളെ പരസ്പരം കണ്ട് സംസാരിച്ച് സ്നേഹം പങ്കിടാനൊക്കെയായിട്ടു ഉള്ള അവസാരങ്ങള് ഒരിക്കലും ആളുകൾ നഷ്ടപ്പെടുത്തരുത് അത് ആളുകൾ വേണ്ട വിധത്തിൽ സഹോദര്യത്തിലും സന്തോഷത്തിലും ഉപയോഗിക്കുകയാണ് വേണ്ടത്